എല്ലാ ആഴ്ചയും നിങ്ങളുടെ പ്രദേശത്ത് ചന്ത അങ്ങാടി നടത്താറുണ്ടോ അതെന്ന് പറയുമ്പോൾ ഞങ്ങള് നിൻ്റെ വീടെന്ന് പറഞ്ഞാൽ ചന്ത കുന്ന് ഏരിയയിലാണ് അത് ചന്ത കുന്ന് എന്ന് തന്നെയാണ് പ്രദേശത്തിൻ്റെ പേര് എല്ലാ വ്യാഴാഴ്ചയും അവിടെ ചന്ത ഉണ്ടാകാറുണ്ട് ചന്തയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല് നമുക്ക് എ ടു ഇസഡ് എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും അന്നവിടെ അവൈലബിളായിരിക്കും ഡിഫ് എല്ലാ പ്രദേശത്ത് നിന്നൊരുപാട് പ്രദേശത്തുള്ള ആളുകൾ കച്ചവടക്കാര് ഒരൊറ്റ സ്ഥലത്ത് തമ്പടിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് ചന്ത എന്ന് പറയുന്നത് നല്ല തിരക്കുണ്ടാവും ഒരുപാട് സാധനങ്ങള് വിലക്കുറവിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും പച്ചക്കറിയാണെങ്കിലും പലചരക്ക് സാധനമാണെങ്കിലും ബ്യൂട്ടി ഐറ്റംസാണെങ്കിലും എന്ത് ഐറ്റംസാണെങ്കിലും നമുക്ക് ചന്തയില് അന്നത്തെ ഒരു ദിവസം അവൈലബിളാണ് ചന്തക്കായിട്ട് വെയ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകള് എനിക്കറിയാവുന്ന നേരിട്ട് അരിയാകുന്ന ഒരുപാട് ആളുകളുണ്ട് എന്താന്ന് വെച്ചാൽ വൺ വീക്ക് ഒരാഴ്ചക്കുള്ള സാധനങ്ങള് അവരൊരുമിച്ച് വാങ്ങിയേക്കാൻ ചന്ത എന്നുള്ളത് നമ്മളെ ഹെൽപ്പ് ചെയ്യും നല്ല നമു വേണ്ട സാധനങ്ങൾ ഡയറക്റ്റ് നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് ചന്തയില് അത് തന്നെ ഒന്ന് രണ്ടാളുകൾ ഇപ്പം വെജിറ്റബിൾസ് തന്നെ എടുത്ത് കഴിഞ്ഞാലൊരു ഒരുപാട് സെക്ഷൻസ് വെജിറ്റബിൾസ് തന്നെ ഉണ്ടാകും നമുക്ക് ഒരു പല വിലകളിലും എല്ലാ അവൈലബിളായിരിക്കും പല ക്വാളിറ്റികളിൽ അവൈലബിളായിരിക്കും നമുക്ക് ചൂസ് ചെയ്ത് സാധനങ്ങളെടുക്കാം അതുപോലെ തന്നെ ചന്ത അന്നത്തെ ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹെവി ആയിരിക്കും അങ്ങാടിയിൽ ഒരുപാടാളുകളുണ്ടാവും അതിന് ചുറ്റുമറ്റ് കെടക്കുന്ന മറ്റ് ഷോപ്പുകൾക്കും ചന്തേനെകൊണ്ട് ബെനഫിറ്റ്സുണ്ടാകും ഒരുപാട് ആളുകള് അന്നത്തെ ദിവസം ചന്ത മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങാടിയിൽ വരും

ഇൻട്രസ്റ്റിങ്ങാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അന്നത്തെ ആ ഒരു ദിവസം അവിടെ അവൈലബിളായിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ മെയ്നായിട്ട് തന്നെയാണ് വൺ വീക്കിലോട്ടുള്ള സാധനങ്ങള് നമുക്കൊരുമിച്ച് പർച്ചേസ് ചെയ്ത് വെക്കാം അതാണ് മെയ്നായിട്ട് ചന്ത കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വളരെ വിലക്കുറവിൽ നമുക്കൊരുപാട് ക്വാണ്ടിറ്റീസ് വൺ വീക്കിലോട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങിയിട്ട് നെക്സ്റ്റ് ചന്ത വരുന്നത് വരെ നമുക്ക് വെയ്റ്റ് ആക്കാം പിന്നെ അവൈലബിളായിട്ട് നമ്മള് കണ്ട് വെച്ചിട്ടുള്ള എന്തേലും സാധനം വാങ്ങിക്കണ്ട ലിസ്റ്റ് പ്രീപെയർ ആക്കി വന്ന് കഴിഞ്ഞാല് ആ നമുക്ക് ചന്തയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിളാണ് ബ്യുട്ടി ഐറ്റംസും നോർമ്മല് കുളി സോപ്പ് മുതല് എല്ലാം ഐറ്റംസും നമുക്ക് അന്നത്തെ ദിവസം ചന്തയില് കിട്ടും വളരെ വിലക്കുറവിൽ പിന്നെ നമുക്ക് നോർമലായിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചന്തയില് പോയി കഴിഞ്ഞാൽ നമുക്ക് അപൂർവമായിട്ട് കാണാവുന്ന പ്രോഡക്ട്സ്കളും കിട്ടും കരകൗശല വസ്തുക്കളുൾ ഉൾപ്പടെ നമ്മള് വിചാരിക്കുന്ന സമയത്ത് നമക്ക് കിട്ടണം എന്നില്ല പക്ഷേ ചന്തയെ സംബന്ധിച്ചിടത്തോളം ചന്തയിൽ പോയി കഴിഞ്ഞാല് അങ്ങനത്തെ ഐറ്റംസ് വരെ നമുക്ക് അവൈലബിളായിരിക്കും അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് വാങ്ങിക്കാൻ എന്താ വാങ്ങിക്കുന്നൊരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ചന്ത എന്നുള്ള സെറ്റപ്പ് അതും ഒരുപാട് കച്ചവടക്കാർക്ക് പരിസര പ്രദേശങ്ങളിലുള്ള കച്ചവടക്കാർക്ക് വരെ അന്നത്തെ ഒരു ക്രൗഡ് കാരണം അവരുടെ കച്ചവടത്തിന് അവരുടെ ബിസ്നസ്സിനും ഡെവലപ്മെന്റിനും ഈ ചന്ത എന്നുള്ള സംഗതി വളരെ ഹെൽപ്ഫുള്ളാണ് സോ ചന്തക്ക് എല്ലാ വിധ സപ്പോർട്ടും ഉണ്ട് നല്ല രീതിയിൽ നമുക്ക് ചന്ത ഉപയോഗിക്കാൻ കഴിയും